നമ്മുടെ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ അധ്യാപകൻ വളരെ നല്ല ദീർഘവീക്ഷണവും അറിവും പക്വതയും നമ്മളുടെ ആ പുള്ളി പഠിപ്പിക്കുന്ന കുട്ടികളുടെ പുരോഗതിയും ആ കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിൽ സഹായം ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ എന്ത് സഹായങ്ങളും എക്സ്ട്രാ സമയവും ക്ലാസെടുക്കാനും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് അവനെ സഹായിക്കാനും അവൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ പുള്ളി എന്നോട് കൂടുതൽ സംസാരിച്ചു എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ വിദ്യാഭ്യാസത്തിലെ എൻ്റെ പോരായ്മ്മകൾക്ക് വലിയ ഒരു മുതൽ കൂട്ടും വലിയ ഒരു വഴികാട്ടിയുമായിരുന്നു അപ്പം സാറ് പറയുന്നത് നമ്മൾക്ക് പല കാര്യങ്ങൾകും നമ്മൾ വേണ്ട വിധം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പല തെറ്റുകൾ നമ്മളെ ജീവിതത്തിൽ വരുന്നത് എന്നാണ് സാർ പറയുന്നത് നമ്മൾ എന്താണ് നമ്മൾ ഒരു പോക്ക് ഒരു വരവ് പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ ഉഴപ്പി നടന്നു നടക്കുന്നതും അതൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല പുള്ളി പറയുന്നത് നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അതുപോലെ സാമ്പത്തികമായിട്ട് ആ സഹായിക്കുന്ന ഒരു നല്ല സാറ അപ്പം പുള്ളി നമ്മളുടെ തലമുറയെ ഈ വരുന്ന എന്നെ പോലെയുള്ള ആൾക്കാരുടെ ജീവിതത്തിലെ അവരുടെ പുരോഗതി മാത്രം ലക്ഷ്യങ്ങളുള്ള ഒരു നല്ല സാറായിരുന്നു ആ പുള്ളി പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെയും വളരെ നല്ല കഴിവുള്ളവരും അതുപോലെ തന്നെ വളരെ ആത്മാർഥതയോടു കൂടെ അവരുടെ ഓരോ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവർക്ക് വേണ്ട നല്ല ഉപദേശങ്ങൾ കൊടുക്കുകയും പഠിത്തത്തോടൊപ്പം തന്നെ മറ്റ് കഴിവുകൾ മറ്റു സ്പോർട്സിലാണെങ്കിലും മുന്നോട്ട് വരാനായിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഒരുപാട് സമയം അതിനായിട്ട് പുള്ളി ചിലവഴിക്കുന്നുണ്ട് പിന്നെ ഒരു എന്ത് പറയുന്നത് ഒരു നല്ല നല്ല മനസ്സിൻ്റെ ഉടമയാണ് ഏ നല്ല മനസ്സിൻ്റെ ഉടമ എന്നു പറഞ്ഞാൽ നമ്മൾ നാല്പ്പത് കുട്ടികൾ ഉണ്ടെങ്കിൽ ആ നാൽപ്പത് കുട്ടികളെയും ഒരേ കണ്ണുകൾ കൊണ്ട് കാണും ഏ അവരുടെ ഓരോരോ പ്രശ്നങ്ങൾക്ക് സൗമ്യമായിട്ട് കേട്ടു ഇപ്പം ഒരാൾക്ക് എന്തെങ്കിലും കാരണവശാൽ അവധി ക്ലാസ്സിൽ വരാൻ പറ്റിയില്ല അവൻ്റെ പ്രശ്നം എന്താണെന്നും മനസ്സിലാക്കിക്കൊണ്ട് നല്ല ഉപദേശങ്ങൾ കൊടുക്കാനും അവന് പോരായ്മകുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനും പിന്നെ എക്സ്ട്രാ സമയം ക്ലാസ്സിൽ ക്ലാസ് ടീച്ചേഴ്സ് മുറിയിൽ കൊണ്ടുപോയി ഇരുത്തി പഠിപ്പിക്കാനും ഒക്കെ ആ പുള്ളി ഒരുപാട് വലിയ മനസ്സ് കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഈ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലെങ്കിൽ പൈസ തരാനും കൈയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ തരാനും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസം ഭക്ഷണം കൊണ്ടു വരാതെ ഞാൻ ചെന്ന ഒരു ഇതുണ്ട് ഭക്ഷണം കഴിക്കാതെ ചെന്നു അപ്പം പുള്ളിയുടെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ഷെയർ ചെയ്തു നമ്മളെ കഴിപ്പിച്ചു സന്തോഷമാക്കി വിടുന്ന അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തതായിട്ട് എനിക്ക് പറയാനുണ്ട് ആ പുള്ളി ഇന്ന് ഇപ്പം മരിച്ചു പോയി എങ്കിലും ആ പുള്ളിയെ നമ്മൾ എപ്പോഴും ഓർക്കുന്ന ഒരു നല്ല ഒരു അധ്യാപകനാണ് ഒരാൾ എന്നല്ല അനേകർക്ക് പുള്ളി ഇങ്ങനെ ഓരോ ഓരോ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അവരെ പഠിപ്പിക്കുകയും അവർക്ക് ഇന്ന് വലിയ സ്ഥാനങ്ങളിലൊക്കെ അവർ എത്തിച്ചേർന്നതായിട്ട് അറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഒരു നല്ല അദ്ധ്യാപകനാണ് ആ സാറ് ആ സാറിൻ്റെ നല്ല ഗുണങ്ങളൊക്കെ ഞങ്ങൾ എന്നും ഓർക്കും ഇന്നും ഇപ്പോൾ എനിക്ക് അമ്പത്തി അഞ്ച് വയസ്സായി ഇപ്പം ഞാൻ സാറിനെക്കുറിച്ചു ഓർക്കാറുണ്ട്